നിങ്ങളുടെ അതിഥികളെ എങ്ങനെയാണ് സൽ സൽക്കരിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവ അവരോ അവരോടൊത്ത് സമയം ചെലവഴിച്ചും യാത്ര ചെയ്തും ഒക്കെയാണ് എന്തൊക്കെ പാചകം ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ എനിക്കറിയാവുന്നതായ സാമ്പാർ നെയ്ച്ചോറ് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പായസം അങ്ങനെയുള്ള കുറച്ചു വിഭവങ്ങളാണ് ഞാൻ മറ്റുള്ളവർക്കായിട്ട് പാചകം ചെയ്തു കൊടുക്കാനായി ആഗ്രഹിക്കുന്നത്